ഹലോ ആ എന്തായിരുന്നു അതെ അതെ അതെ എന്തായിരുന്നു ആ പറഞ്ഞോളൂ എന് എന്നാണ് എപ്പോഴായിരുന്നു ഓർഡർ ചെയ്തത് നാല് മണി നാല് മണി ആ ആണോ എന്ത് എന്ത് എന്തൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത് ആ അത് എപ്പോഴത്തേക്കായിരുന്നു സമയം ആ ഹാ ഹാ ഇതുവരെ എത്തിയിട്ടില്ല അല്ലേ ആ ആ അത് കുഴപ്പമില്ല അത് നല്ല കാര്യം നോക്കിയാണോ വിട്ടത് ആ അത് നമ്മൾ സമയത്ത് തന്നെ എത്തിക്കുന്നതാണ് ഇന്നിവിടെ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു അത് ഇവിടെ വന്ന് മേടിച്ച് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകണോ അതോ ഹോം ഡെലിവെറി ആയിരുന്നോ എങ്ങനെ ആയിരുന്നു പറ ആ അതയായിരുന്നല്ലേ ആ ഹാ ഹാ ഹാ ഇന്ന് ഏ ആ ഇന്ന് നമുക്ക് ഇച്ചിരിയൊരു കസ്റ്റമേഴ്സ്സ് കൂടുതൽ ആയിരുന്നു അതിന്റെതാണ് ഇച്ചിരി താമസിച്ചത് നമ്മൾ അത് കറക്റ്റ് സമയത്ത് തന്നെ എത്തിക്കുന്നതായിരിക്കും ആ ആ സാധനം അങ്ങനെ തന്നെ നമ്മൾ എത്തിക്കും അത് ഒത്തിരി താമസിക്കത്തൊന്നുമില്ല ആ പിന്നെ പരമാവധി ആ നേരത്തെ നേരത്തെ എത്തിക്കുന്നതായിരിക്കും ആ ആ അതെ അതെ ആ ഓർഡർ ചെയ്ത് ആ ഇത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എത്തിച്ചേക്കാം അത് നമ്മൾ അധികം ഡിലേ ഒന്നും വരിത്തില്ല ഇനി എന്തേലും ആ ഉണ്ട് ഉണ്ട് എഴുതി വെക്കുന്നുണ്ട് അത് ഇന്ന് ഒരാളില്ലായിരുന്നു ഒന്ന് ഒരാളില്ലായിരുന്നു നമുക്ക് അപ്പം അതിന്റെ ഒരു ഷോർട്ടേജ് നമുക്ക് വന്നായിരുന്നു അത് നമ്മൾ ഇപ്പം ആ

ആ ആ ആ അത് ശ്രദ്ധിച്ചേക്കാം ആ പൊറോട്ടയുടെ കൂടെ വെച്ചേക്കാം ആ ഓക്കെ ആ ഹാ ആ ഉം അത് അം ഓ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും വരില്ല മാഡം നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് പോകുന്ന ഫുഡുകളെല്ലാം എല്ലാവര്ക്കും നല്ല റിവ്യൂസാണ് ഉള്ളത് കറക്റ്റ് സമയങ്ങളിൽ തന്നെ എല്ലാം എത്താറൊക്കെയുണ്ട് അപ്പം അതിൽ നമ്മളിതുവരെ അധികം വീഴ്ച്ച വരുത്തിയിട്ടില്ല എല്ലാം തന്നെ എല്ലാം ഫുഡ് എല്ലാം നല്ല റിവ്യൂസ്സ് വന്നിട്ടുണ്ട് അതെ അതെ അതെ തീർച്ചയായിട്ടും അതെ അതെ അതെ ആ അത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ ഇവിടെ ആൾ ഉള്ളത് പോലെ തന്നെ നമ്മൾ അത് പെട്ടെന്ന് തന്നെ ചെയ്യും നമുക്കും കസ്റ്റമേസിന്റെ ഹാപ്പിനെസ് ആണല്ലൊ നമുക്കും വലുത് അപ്പം അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് തന്നെ ചെയ്ത് തരുന്നതായിരിക്കും നല്ല ഫുഡ് അത് നമുക്ക് എല്ലാം എക്സ്പീര്യന്സ് എക്സ്പീര്യന്സ് ആയിട്ടുള്ള